ഇന്നത്തെ കാലത്ത് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് തൊഴിൽ ഇല്ലായ്മ അത് ഇപ്പോൾ വളരെ രൂഷമായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് തൊഴിൽ ഇല്ലായ്മ എന്ന് പറയുന്നത് ഇപ്പോൾ പലരും പഠിച്ച കോഴ്സായിട്ട് ബന്ധപ്പെട്ട് അല്ല പഠിച്ച് ഒരു വിഷയമായി ബന്ധപ്പെട്ട ജോലികളുമല്ല പല ആൾക്കാരും ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ ജോലികിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഈ ജോലി ചെയ്യുന്നത് അതായത് യുവാക്കൾ ചെയ്യുന്ന ജോലി അതുപോലെ നമുക്ക് കിട്ടുന്ന ജോലി ഇത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു കൂലിയോ നമുക്ക് ഇപ്പോൾ കിട്ടാറില്ല നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്നില്ല വളരെ തുച്ഛമായിട്ടുള്ള സാലറി അല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള ശമ്പളം മാത്രമേ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കിട്ടുന്നുള്ളു മാത്രമല്ല നമ്മൾ പലരും പലരും പഠിച്ച രീതിക്കുള്ള ഒരു കോഴ്സല്ല ആരും ചെയ്യുന്നത് പിന്നെ എടുത്ത് പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പലരും അവർ എന്താ പറയുക പ്ലസ് ടു വരെ അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കോസ്റ്റിയൻ മാർക്ക് പോലെ എല്ലാവരുടെയും മുന്നിൽ ഒരു ചോദ്യചിഹ്നം ആയിട്ട് നിൽക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നെക്സ്റ്റ് ഒപ്പീനിയൻ അതായത് നെക്സ്റ്റ് കാര്യം എന്താണ് അതിന് അടുത്തതായിട്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് തൊഴിലിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കേണ്ടത് എന്നൊരു കോസ്റ്റിയൻ മാർക്ക് പോലെ നിൽക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പറയാം എങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു പ്രശ്നം കൂടിയാണ് ഇത് പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ പഠിച്ച കോഴ്സ് ഐ ടി ഐ യിൽ ഞാൻ പഠിച്ചതായിട്ട് ബന്ധപ്പെട്ട ജോലി എനിക്ക് കിട്ടിയിട്ടില്ല മാത്രമല്ല നമുക്ക് അതിനൊരു അവസരം കിട്ടുന്നില്ല അവർ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ അവർ നമ്മൾ ഈ കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഈ കോഴ്സ് പോര അല്ലെങ്കിൽ ഈ വൺ ഇയർ കോഴ്സ് പോര അതിൽ കൂടുതൽ വേണം മിനിമം രണ്ട് ഇയർ എങ്കിലും പഠിച്ചിരിക്കണം മിനിമം ബേസിക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതുമല്ലെങ്കിൽ മിനിമം ഡിഗ്രി എങ്കിലും വേണം മറ്റുള്ള കോഴ്സ് പഠിക്കുന്ന പിള്ളേർക്ക് ഈ ഡിഗ്രി പഠിക്കാതെ മറ്റുള്ളവർ പഠിക്കുന്നവർക്ക് കിട്ടണമെങ്കിൽ തന്നെ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ചെന്നതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളിത് നല്ലൊരു പ്രശ്നം തന്നെയാണ് തൊഴിൽ ഇല്ലായ്മ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് തോഴിൽ ഇല്ലായ്മയിൽ പ്രശ്നങ്ങൾ വരുന്നത് പിന്നീട് ഈ കൃഷിപോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഇന്ത്യക്കാർ ശ്രദ്ധിക്കുവാണേൽ പ്രതേകിച്ച് കേരളത്തിൽ ഉള്ളവരും ഈ തമിഴ്നാടും മാത്രമേ ഇപ്പോൾ നമുക്ക് നിലവിലിങ്ങനെ കിട്ടുന്നുള്ളു കൃഷി കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നവരുള്ളൂ അപ്പോൾ നമ്മൾ പൊതുവെ ഒട്ടുമിക്ക എല്ലാ രാജ് എല്ലാ സംസ്ഥാങ്ങളും ഇതുപോലെ കൃഷിയിലേക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത് കുറച്ചുകൂടി പേരുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തൊഴിലിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സമയം അല്ല സമയം അല്ല സോറി നമുക്ക് ഏറ്റവും കൂടുതൽ ഈ തൊഴിൽ ഇല്ലാത്ത സമയത്ത് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് കൃഷി എന്ന് പറയുന്നത് അത് അത് നമുക്ക് അതു ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക സമ്പത് വ്യവസ്ഥ കുറച്ചുകൂടി മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ ഭക്ഷ്യ വസ്തുക്കളുടെ ഈ കുറവ് നമുക്ക് അത് കുറക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ സർക്കാർ നമുക്ക് വേണ്ടി ചെയ്യേണ്ടേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിൽ അവസരങ്ങളും പുതിയ വരുന്ന തലമുറക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല പ്ലസ് ടു ഒരു ഒരു മിനിമം വിദ്യാഭ്യാസം എത്തുമ്പോൾ തന്നെ കുട്ടികളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അവർക്ക് പഠിക്കാൻ ഉള്ള അവസരങ്ങളും പ്രതേകിച്ച് സ്കൂളുകളിൽ ഡിജിറ്റല് പോലെയുള്ള അതായത് ഡിജിറ്റൽ ക്ലാസ്സ്റൂം അങ്ങനത്തെ പോലെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ശരിക്കും എന്താ പറയുക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് ചെയ്ത് തരേണ്ട കാര്യങ്ങളാണ് കുട്ടികൾക്ക് പൊതുവെ കൂടുതൽ കൂടുതൽ അറിയുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കൂടുതൽ പഠിക്കാനും അവർക്ക് ഇപ്പോഴത്തെ പ്ലസ്ടു ഒക്കെ ആകുമ്പോൾ തന്നെയേക്കും അവർക്ക് ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയാനായിട്ടും ഒക്കെ ഉള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത് സർക്കാർ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് ചെയ്യാൻ സർക്കാർ സർക്കാർ തന്നെ ശ്രമിക്കുവാണെങ്കിൽ വളരെ ഹെല്പ്ഫുൾ ആയിരിക്കും കുട്ടികൾക്ക്